ഞങ്ങളുടെ പ്രദേശത്ത് സ്ത്രീകൾക്ക് കൂടുതലായിട്ടും ജോലി സാധ്യത ജോലികൾ നന്നായിട്ട് എല്ലായിടത്തും മുൻ തൂക്കമായിട്ട് ആണുങ്ങളേക്കാൾ ആണുങ്ങളുടെ ഒപ്പം തന്നെ പെണ്ണുങ്ങളുമുണ്ട് ഏത് ജോലി സ്ഥലത്ത് നിന്നാലും പെണ്ണുങ്ങൾ കൂടുതലായിട്ടാണ് ഒരു ബാങ്കിൽ ചെന്ന് നോക്കിക്കോളൂ ഒരു ടീച്ചിങ്ങ് മേഖലയിൽ നോക്കിക്കോളൂ അല്ലങ്കിലൊരു ഒന്നും വേണ്ട നമ്മുടെ ഇവിടെ ഈ സമൂഹത്തിൽ വേസ്റ്റെടുക്കാൻ വരുന്നത് കൂടെ ഒരൊറ്റ ആണുങ്ങളില്ല എല്ലാം സ്ത്രീകളാണ് അവർ തന്നെ പുരോഗമനത്തിലേക്ക് പോവുകയാണ് കാരണം അവർ പുതിയ പുതിയ സംരംഭങ്ങൾ സ്ത്രീകൾ തുടങ്ങുന്നു പല പല കമ്പനികളിൽ ചെറിയ ചെറിയ വീട്ടുകളിൽ തന്നെ ആണെങ്കിലും ചെറിയ ചെറിയ കച്ചവടങ്ങളായിട്ടും ചെറിയ ചെറിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയൊക്കെ ആയിട്ടവർ അവർ മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത് അപ്പം നമ്മടെ ഈ പ്രദേശത്ത് സ്ത്രീകളുടെ പങ്ക് കാലക്രമേണെ ഒത്തിരി ഏറെ മാറിയിട്ടുണ്ട് കാരണം പണ്ടുള്ള സ്ത്രീകൾക്ക് ഒന്ന് പുറത്തിറങ്ങാനോ ഒരു സാധനം വാങ്ങാൻ പോവാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുൻപിൽ ഇറങ്ങി നിന്ന് സംസാരിക്കാനോ പോലും ഭയങ്കര മടിയായിരുന്നു ഇന്ന് അങ്ങനെയല്ല ആരുടെ മുൻപിൽ എവിടെ പോകണം ഒരു പോലീസ്റ്റേഷനിൽ പോണെ വരെ പോണെങ്കി പോലും അവർക്കിപ്പോൾ ഒരു മടിയില്ല കാരണം അവരത്രത്തോളം മാറിയിട്ടുണ്ട് അത് വിദ്യാഭ്യാസം കൊണ്ടാവാം അവരുടെ സാഹചര്യം കൊണ്ടാവാം എന്തുമാവട്ടെ കാരണം നമ്മൾക്കും ഒപ്പം വേണം സാമ്പത്തികമായും പല രീതിയിൽ ചിന്തിക്കുന്നവരുണ്ട് കേട്ടോ സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ നമുക്ക് ജീവിക്കണം മുന്നോട്ട് ജീവിക്കണം അല്ലെങ്കിൽ നമ്മുടെ മക്കളെ മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ട് നടക്കണം മക്കൾക്ക് നല്ല വിദ്യാഭ്യസം കൊടുത്ത് നല്ല രീതിയിൽ മക്കളെ വളർത്തണമെന്ന് വിചാരിച്ച ചില അമ്മമാർ നല്ല രീതിയിൽ മുന്നോട്ട് ഇറങ്ങുന്ന അമ്മമാരുണ്ട് ചിലവരുടെ ഹസ്ബൻറ്റില്ല അല്ലെങ്കിൽ വേർപിരിഞ്ഞവരോ അല്ലെങ്കിൽ മരിച്ച് പോയവരോ ആയിക്കഴിഞ്ഞാൽ ജീവിത സാഹചര്യം കൊണ്ട് മുന്നോട്ട് വരുന്നവരുണ്ടാകാം ഇല്ലെങ്കിൽ എന്തിന് നമ്മൾ പുറകോട്ട് നിൽക്കണം നമ്മൾ മുന്നോട്ട് ഒപ്പത്തിനൊപ്പം നിൽക്കണം അല്ലെങ്കിൽ അവരെ നമ്മുടെ ഹസ്ബൻ്റിനെ സഹായിക്കാൻ അല്ലെങ്കിൽ ഞാൻ ഒരാണുങ്ങൾ തന്നെ അദ്ധ്വാനിച്ച് കൊണ്ട് വന്ന് ഒരു കുടുംബം മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമല്ല ഇന്ന് വരുന്നത് കാരണം സാമ്പത്തികമായിട്ട് നമ്മുടെ ഈ ലോകം മൊത്തത്തിൽ സാമ്പത്തികമായി പ്രതിസന്ധിയിലേക്ക് കടന്ന് പോകുന്നൊരു സാഹചര്യമാണ് അപ്പോൾ ഒരാൾ മാത്രം അദ്ധ്വാനിച്ച് കൊണ്ട് ഇന്ന് ഒരു കുടുംബം പുലർത്തുവാനുള്ളൊരു കഴിവില്ലാത്തതിനാൽ ചില വീട്ടമ്മമാരായവരും അല്ലാത്തവരായാലും പല ജോലികളിലും ചെറിയ ചെറിയ കച്ചവടങ്ങളായിട്ടും അല്ലാതെ പഠിച്ച് നല്ല മിടുക്കരായി നല്ല ജോലി മേടിച്ച് നല്ല ജോലി സാധ്യതയിലോട്ട് വരുന്നവരും ഉണ്ട് അപ്പം ഇതൊക്കെ നമ്മുടെ ഓരോ ജീവിത സാഹചര്യം കൊണ്ടും സാഹചര്യങ്ങളിൽ കൂടെയും വരുന്നതാണ് പിന്നെ അന്ന് മുസ്ലിം സ്ത്രീകളായിരുന്നു കുറേ ഒക്കെ പുറകോട്ട് ജോലിക്കും പഠനത്തിലും ഒക്കെ കുറേ പുറകോട്ട് വന്നിരുന്നത് പക്ഷേ ഇന്ന് അവർ അത് മുന്നോട്ട് വന്ന് തുടങ്ങി കാരണം വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലവർ മറ്റ് മതസ്ഥരെ പോലെ തന്നെ മാറ്റാൾക്കാരെ പോലെ തന്നെ മുന്നോട്ട് കുതിച്ചുയർത്തി വേറെ സ്ഥലങ്ങളിൽ പോകുവാനും ദൂരെ സ്ഥലങ്ങളിൽ പോയി പഠിക്കാനും ഒക്കെ അവർക്ക് സ്വാതന്ത്ര്യം ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ തന്നെ അവർക്ക് ഒരു വിദ്യാഭ്യാസ ജീവിതം അവരുടെ കുറച്ച് കാലം മാത്രമവർക്ക് വിദ്യാഭ്യാസ ജീവിതം പുറത്ത് പോയി ഉണ്ടായിരുന്നുള്ളു പിന്നെ അവർക്ക് അങ്ങനെ ഒരു ജീവിതം ഇല്ലായിരുന്നു ഇപ്പോൾ അത് നേരെ തിരിച്ചു കാരണം അവർക്ക് പുറത്ത് പോയി പഠിക്കാനും നല്ല ജോലികൾ സാധ്യതകൾ ജോലി സാധ്യത ഉണ്ട് അവർക്ക് കാരണം ഇപ്പം അവർക്ക് ജോലി കിട്ടാനുള്ളൊരു അവസരം ഇപ്പം കിട്ടുന്നുണ്ട് അപ്പം നമ്മുടെ ഈ പ്രദേശത്ത് ഒത്തിരി ഒത്തിരി മാറ്റങ്ങളുണ്ട് കാരണം സ്ത്രീ ശക്തി മുന്നോട്ട് വരുന്നുണ്ട് കാരണം കുടുംബശ്രീ മുഖേന കുറേ ആൾക്കാർ കുടുംബശ്രീയിൽ വന്നു അവിടെ നിന്നാണ് ഒത്തിരി കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഇങ്ങനെയെല്ലാം മുന്നോട്ട് വന്നു കൊണ്ടിരിക്കുന്നു അപ്പം ജോലിയുടെ മാത്രമല്ല വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ പോലും സ്ത്രീകൾ മുന്നോട്ട് വന്നിട്ടുണ്ട് അതിനുള്ള സ്വാതന്ത്യ്രമുണ്ട് അപ്പം ചില കാര്യങ്ങളിൽ സ്ത്രീകൾ കുറേ നേരിട്ട് കുറേ പ്രശ്നങ്ങളും വെല്ലുവിളികളുമൊക്കെ ഉണ്ട് അപ്പോൾ അതിനെയെല്ലാം വെല്ലുവിളികളൊക്കെ അതിജീവിച്ച് മുന്നോട്ട് അവർ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് അതിനെ എല്ലാം അതിജീവിച്ച് ജീവിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ മുന്നോട്ട് വരണം കാരണം എന്ത് കാര്യത്തിലും ഏതൊരു ജോലിക്കും ഇപ്പോൾ ആദ്യം മുതൽ ഹെവി ലൈസൻസ് കിട്ടിക്കൊണ്ടിരുന്നത് ആണുങ്ങക്കായിരുന്നു ഒരു ബസ്സ് ഓടിക്കാനൊക്കെ ആണുങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഇന്നിപ്പം അത് അതും ബസ്സ് ഓടിക്കുകയല്ല ഒരു ലോറി ഓടിക്കാൻ വരെ നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾ മുന്നോട്ട് വന്നിട്ടുണ്ട് അതിനുള്ള തൻ്റേടവും ധൈര്യവും അവർക്ക് കിട്ടി തുടങ്ങി അപ്പം എല്ലായിടത്തും അവർ ഒന്നിനൊന്ന് മെച്ചമായി വന്നത് അപ്പം നമ്മുടെ ഈ പ്രദേശത്ത് സ്ത്രീകൾക്ക് പങ്ക് കാലക്രമേണ മാറിയിട്ടുമുണ്ട് ജോലിക്ക് വിദ്യാഭ്യസം വേറെ സ്ഥലങ്ങളിൽ പോയി പോകാനുള്ള സ്വാതന്ത്ര്യയവും ഉണ്ട് ഒറ്റക്ക് ദൂരെ സ്ഥലങ്ങളിൽ ജോലിയ്ക്ക് പോകുന്നവരുണ്ട് വരുന്നവരുണ്ട് പിന്നെ കഷ്ടപ്പെട്ട് പണം സമ്പാദിച്ച് നല്ല നല്ല ജോലി ജോലികളിലേക്ക് പ്രവേശിച്ച് അവരേയും കൊണ്ട് ഒത്തിരി കൂട്ടായ്മകൾ സ്ത്രീശാക്തീകരണ കൂട്ടായ്മകളുണ്ടാക്കി പത്തും മുപ്പതും നാനൂറും ആൾക്കാരെ ഒന്നിച്ച് ഒരു സ്ത്രീ മേൽനോട്ടം നിന്ന് ഗൾഫ് രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെ അവരെ കൊണ്ട് പോവുകയും അവിടെയുള്ള സ്ഥലങ്ങളെല്ലാം കാണിച്ച് തിരിച്ച് കൊണ്ട് വരാനും ഒക്കെയായിട്ട് സ്ത്രീകൾ മുന്നോട്ട് വരുന്നുണ്ട് പിന്നെ അവർ പറയുന്നത് അന്താണെന്ന് വച്ചാൽ നമുക്കും വേണം സ്വാതന്ത്ര്യം അല്ലെ നമ്മൾ വീടുകളിൽ കഷ്ടപ്പെട്ട് പണിയെടുത്ത് എന്തിന് ഓൺലൈൻ വഴിയായിട്ട് ഇപ്പം അമ്മമാർക്ക് വീട്ടിലിരിക്കുന്ന അമ്മമാർക്ക് പല ജോലികൾക്ക് സാധ്യത കൊടുക്കുന്നുണ്ട് ചെറിയ ചെറിയ പണികൾ കൊടുത്തോ അതിൽ നിന്നൊക്കെ തുച്ഛമായ കിട്ടുന്ന വരുമാനം സൂക്ഷിച്ചു വച്ചു അവർ മക്കളെ മക്കളെ പഠിപ്പിക്കാനും മക്കളെ നല്ല ജീവിതം നയിക്കാനുമൊക്കെ അവർ മുന്നോട്ട് പോവുന്നു അപ്പം എല്ലാത്തിനും സ്വാതന്ത്ര്യം വന്നു കൊണ്ടിരിക്കുന്നു അപ്പം സ്ത്രീകൾ ഒട്ടും പുറകോട്ടല്ല മുന്നോട്ട് തന്നെയായി വന്ന് കൊണ്ടിരിക്കുന്നു സ്ത്രീ ശാക്തീകരണം മുന്നോട്ട് തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം